ഓൺലൈൻ തട്ടിപ്പുകൾ കുറേ ഉണ്ട് കാരണം എന്ത് വച്ചു കഴിഞ്ഞാൽ നമ്മളെ അടുത്തുനിന്ന് ഓരോരുത്തർ ഇങ്ങനെ വിളിക്കും വിളിച്ചു കഴിഞ്ഞിട്ട് അത് അമർത്ത് ഇത് അമർത്ത് എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ ബാങ്കിൽ എത്ര ക്യാഷുണ്ടോ അതെല്ലാം അവർക്കറിയാം അപ്പോൾ എന്തു ചെയ്യും നമ്മൾ ഓരോന്നമർത്തി ഒരു ഒ ടി പി വരും അവർ ഒ ടി പി ചോദിക്കും നമ്മളുടെ കയ്യിലുള്ള ക്യാഷൊക്കെ അവരെടുത്തുകൊണ്ട് പോവും എൻ്റെ ഒരു സുഹൃത്തിന് ഇങ്ങനെയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു അവൻ്റെ അക്കൗണ്ടിലെന്തോ ഒരു അവൻ എങ്ങനെയോ ട്രെയിനിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിൻ്റെ സംഭവത്തിൽ അതായത് അവരുടെ ആപ്ലിക്കേഷനിൽ കയറി കയറിക്കഴിഞ്ഞപ്പോൾ അവനൊരു കോള് വന്നു കോള് വന്നതിനു ശേഷം അവനോട് പറഞ്ഞു അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞു അവനെന്നിട്ട് എന്തു ചെയ്യാൻ ഒ ടി പി വന്നിട്ടുണ്ടായിരുന്നു ഒ ടി പി പറഞ്ഞു കൊടുത്തു ഓക്കേ എന്നിട്ട് ഞാൻ പിന്നെ വിളിക്കാം സർ എന്നു പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്തു കട്ട് ചെയ്തതിനു ശേഷം എന്തു ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇരുപതിനായിരം രൂപ ആദ്യം പിൻവലിച്ചു അതു കഴിഞ്ഞപ്പോൾ അവന് ഡൗട്ട് ഇതെങ്ങനെയാണ് പോയതെന്ന് അതു കഴിഞ്ഞിട്ട് അവൻ ബാങ്കിലേക്ക് വിളിച്ച വിളിച്ച് എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറയലെല്ലാം അതു കഴിഞ്ഞപ്പൊഴത്തേക്ക് ഇവൻ അതിൻ്റെ വീണ്ടും പിൻവലിച്ചു അപ്പോൾ അവൻ്റെ നാല്പതിനായിരം രൂപ അങ്ങനെ പിൻവലിച്ചു അതു കഴിഞ്ഞിട്ട് അവൻ്റെ എ ടി എമ്മും ബ്ലോക്കാക്കി അവൻ്റെ ബാങ്കും ബ്ലോക്കാക്കി അപ്പോൾ അവൻ്റെ ബാങ്കിൽ നിന്ന് പിന്നെ പൈസ ഒന്നും എടുക്കാണ്ട് അവർ പിന്ന അത്ര നാല്പതിനായിരം രൂപ അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി പിന്നെ വേറെ കേസു കൊടുത്തിട്ടൊ കാര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ നോക്കിയിട്ടില്ല